ജോലിക്ക് പുറത്തുള്ള ഹോബികളും താൽപര്യങ്ങളും എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഞാനെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഒരു ഗവർമെൻറ്റ് എംപ്ലോയി ആയി ആണ് അതുകൊണ്ട് തന്നേ എനിക്കിപ്പം തിങ്കൾ തൊട്ട് ശനി വരേ എനിക്ക് വർക്കിംഗ് ഡേയ്സാണ് പിന്നേ എന്തെങ്കിലുമിപ്പോൾ രണ്ടു ദിവസം മൂന്നു ദിവസം ലീവ് കിട്ടണമെങ്കിൽ അതിപ്പോൾ ഓണം വിഷു അങ്ങനെയുള്ള സമയത്തൊക്കെയാണ് എനിക്ക് കിട്ടാറ് പിന്നേ എനിക്ക് മെയിനായിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞായറാഴ്ചയാണ് ഹോളിഡേ അപ്പം എനിക്ക് ചെറിയൊരു മോനുണ്ട് ഞാൻ കൂടുതലും അവൻ്റെ കൂടെ സ്പെൻഡെയ്യാനാണ് കൂടുതലും എൻ്റെ ഹോബീയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവനെ കളിപ്പിക്കല് അവൻ്റെ കൂടെ സ്പെൻഡ് ടൈം സ്പെൻഡ് ചെയ്യൽ കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പഴും ഡെയിലി ഞാൻ ഈവെനിംഗാണ് വീട്ടിലെത്താറ് അപ്പം മെയിനായിട്ട് ഞാനെന്ന് വെച്ചിട്ടുണ്ടെങ്കില് അവനെ കളിപ്പിക്കാനൊന്നും എനിക്ക് ഒരു ടൈം കിട്ടാറുണ്ടായില്ല അപ്പം അവൻ ഞാൻ വന്നു കുറച്ചു കഴിയുമ്പോഴത്തേക്കും അവൻ ഉറങ്ങിപ്പോവും അപ്പോൾ എനിക്ക് മൈനായിട്ട് ഞായാറാഴ്ച ഒരു ദിവസം മാത്രേ അവനോട് കളിക്കാനുള്ളൊരു ടൈമും കാര്യങ്ങളൊക്കേ കിട്ടാറുള്ളൂ അപ്പോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം ഞാൻ അവൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യും അവനെ ഉറക്കും അവനെ കുളിപ്പിക്കും ഭക്ഷണം കൊടുക്കും പിന്നേ അവൻ്റെ കൂടെ കുറെ കളിക്കും അവൻ്റെ കളിപ്പാട്ടങ്ങളും കാര്യങ്ങളൊക്കേ എടുത്ത് കുറെ കളിക്കും പിന്നേ അവനു ചോറ് കൊടുക്കും അങ്ങനെ കഥ പറഞ്ഞു കൊടുക്കും പാട്ട് പാടി കൊടുക്കും അതൊക്കെയാണ് എൻ്റെ മെയിൻ ഹോബി എനിക്കത് ഞാനത് ഏറ്റവും എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മോൻറ്റെ കൂടെ കളിക്കലാണ് ഞാൻ ഏറ്റവും എൻജോയ് ചെയ്യുന്നൊരു കാര്യം